ആ ബിൻസി ആണ് നന്നായിരുന്നു ആ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു നമ്മുടെ കല്യാണം നടന്നത് അപ്പം എല്ലാ രീതിയിലും നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയിരുന്നത് പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങൾ എല്ലാവർക്കും നല്ല സംതൃപ്തി ഉണ്ടായിരുന്നു ആ സ്റ്റേജെല്ലാം നല്ലതായിരുന്നു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിൻ്റെ കാര്യങ്ങളും ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളുവെല്ലാം നന്നായിരുന്നു

ഇപ്പം കൂടുതലും കിട്ടിയത് നമ്മുടെ ഡെക്കറേഷനെല്ലാം നന്നായിരുന്നു പിന്നെ ഭക്ഷ്ണവാണെങ്കിലും ഒത്തിരി വിഭവങ്ങൾ ഉണ്ടായിരുന്നു നല്ല എല്ലാ രീതിയിലും നല്ലതായിരുന്നു അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ അന്നു ഡെക്കറേഷൻ ഉപയോഗിച്ചിരുന്നത് ഫ്രഷ് ഫ്ലവർസ് ഒക്കെ ആയിരുന്നു

ആ നിങ്ങളുടെ ഫുഡ്ഡിനാണെങ്കിലും

ആ തീർച്ചയായിട്ടും ഇടാം തീർച്ചയായിട്ടും ഇടാം നിങ്ങളുടെ ആ ഉറപ്പായിട്ടും ചെയ്തേക്കാം നന്നായിരുന്നു എല്ലാവരും നല്ല കാര്യങ്ങൾ ആയിട്ടായിരുന്നു പറഞ്ഞിരുന്നത് ഒത്തിരിപ്പേർ ഈ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് അതിനെ പറ്റി അന്വേഷിക്കുക ഒക്കെ ചെയ്തിരുന്നു ആരാണിത് നടത്തിയത് എന്നുള്ളതിനെ പറ്റി മ് ഓക്കെ നിങ്ങളുടെ മട്ടൻ കറി അടിപൊളി ആയിരുന്നു അത് കുക്ക് ഒക്കെ എവിടെ ഉള്ള ആളാണ് ആണല്ലേ

ആ നല്ല ഫുഡ് ആയിരുന്നു പ്രത്യേകിച്ചും മട്ടൻ കറിക്ക് ഒത്തിരി നല്ല റിവ്യൂസ് പറഞ്ഞു നല്ല എല്ലാവർക്കും പാകത്തിന് എരിവും കൃത്യമായിരുന്നു നോൺ വെജ്ജാണ് ഒത്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് പ്രത്യേകിച്ച് മട്ടൻ കറി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല ചൂടോടെ നിങ്ങൾ കൊടുത്തത് കൊണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ഒത്തിരിപ്പേര് അന്വേഷിക്കുകയും ചെയ്തു ഇതാരാണ് ചെയ്തത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ആ ഉറപ്പായിട്ടും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ അപ്പം അഡ്വാൻസ് ആയിരുന്നു അന്ന് തന്നിരുന്നു ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെ ആണ് ഓക്കെ അപ്പം ഇനി ഒരു എത്രയാ എത്ര ആയിരുന്നു പൈസ ഇനി നമുക്ക് ബാക്കി തരേണ്ടത് അതെ അതെ ഓക്കെ ശരി അന്ന് നമ്മൾ ചെയ്ത അതേ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തേക്കാം ഓക്കെ ശരി ശരി ഡെക്കറേഷന് നമുക്ക് വേറെയെന്തെങ്കിലും പൈസ ഉണ്ടോ ഇനി

ആ കുഴപ്പം ഇല്ല എന്നാലും നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണമായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അന്ന് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് തന്നെ ചെയ്തേക്കാം

ഓക്കെ ഓ ഫൈൻ നിങ്ങളുടെ അങ്കറിങ്ങ് ചെയ്ത കുട്ടി അല്ലെങ്കിൽ ആം മ്യുസിഷൻസ് എല്ലാം നിങ്ങളുടെ ടീമിൽ തന്നെ ഉള്ളതാണോ അതെയോ നിങ്ങൾ പുറത്ത് നിന്ന് ഏൽപ്പിക്കുന്നതാണോ ഇതിന് വേണ്ടിയിട്ട് ഓക്കെ ആ നിങ്ങൾക്ക് എല്ലാം ഉണ്ട് അല്ലെ ആ എന്തായാലും എല്ലാം നല്ലതായിരുന്നു അപ്പം നമുക്കിനി അടുത്ത മാസം ഒരു ഫംഗ്ഷനും കൂടെ വരുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു പരിപാടിയും കൂടെ ഉണ്ട് അപ്പം അത് അത്ര വലിയ പരിപാടിയല്ല ചെറിയ ഒരു ഫംഗ്ഷൻ ആണ് ഒരു മാമോദീസയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് അപ്പം ഇത് നടത്തിയത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നടത്തിയത് കൊണ്ട് നമുക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിക്കണം എന്ന് അപ്പം പക്ഷേ നമ്മൾ ഇത്രയും ബഡ്ജറ്റ് യൂസ് നോക്കുന്നില്ല കുറച്ചും കൂടെ കുറഞ്ഞ രീതിയിൽ ഓക്കെ ഓക്കെ ഇനി ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നീട് വിളിക്കാം ഓക്കെ ശരി താങ്ക്യൂ സോ മച്ച്